ഹലോ ബ്രോ ഞങ്ങളിപ്പോൾ ഐ വിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നു മാർച്ച് ലാസ്റ്റ് വീക്കിലൊക്കെയാണ് ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്താ അപ്പോൾ ഇപ്പോഴും പ്രശ്നങ്ങളൊന്നൂമില്ല ട്രെയിനൊക്കെ സമയത്തിനുണ്ടല്ലോ അങ്ങനെയൊരിത് കേട്ടു അപ്പോൾ അതിനെക്കുറിച്ചറിയാനാണ് അതെങ്ങനെയായാലും ഫോളോക്ക് വേണ്ടി നമ്മൾക്ക് ഇത് കിട്ടുക ട്രെയിനിനൊക്കെ ഇതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്കെന്താ അവസ്ഥ ഞങ്ങൾക്ക് ഒരു ലാഗൊന്നും വരില്ലല്ലോ നമ്മൾക്ക് ആ ഡേറ്റിനു തന്നെ പോയിവരികയും വേണം ആ അതുപോലെ ആ ട്രെയിനിൻ്റെ അവസ്ഥ എന്താ ഓക്കേ അല്ല ഞങ്ങൾക്കെന്തായാലും പോകണം ഞങ്ങൾക്കെന്തായാലും ഐ വി ഞങ്ങൾക്കിത്ര ഡേയ്റ്റിനുള്ളിൽ പോയി വരണം എന്നുണ്ട് അപ്പോൾ അതിനുള്ള പോയി വരാനുള്ള ഒരിതിലാണ് ഞങ്ങളിരിക്കുന്നത് അത് മുടങ്ങിയാൽ പിന്നെ നമ്മൾക്ക് ആ ഒരു പോക്ക് നടക്കുകയുണ്ടാവില്ല നമ്മളിതിൻ്റെ പത്ത് പതിനഞ്ചു ദിവസം കൂടിയെയുള്ളൂ നമ്മൾക്ക് അറ്റൻ്റൻസ് ആ മറ്റേതൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നെയുള്ളത് അതിനെക്കുറിച്ചൊക്കെയെന്ന് നോക്കിയിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് കാര്യമുണ്ടാവുമോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു